ഹലോ ആ റിയല് എസ്റ്റേറ്റ് ബ്രോക്കര് ആണോ ഞാനിവിടെ പിന്നേ നമ്മൾ ബാംഗ്ലൂരിൽനിന്ന് വിളിക്കുന്നതാണേ അപ്പം അവിടെ എന്തെങ്കിലും അതായത് നമുക്ക് കോഴിക്കോട് പിന്നെ ടൌൺ വേണ്ട അവിടെനിന്നൊരു ഉള്ളിലോട്ട് ഒരു അഞ്ച് കിലോമീറ്റര് അതായത് റോഡ്സൈഡ് ഒക്കെ ആയിരിക്കണം നമുക്ക് എല്ലാത്തിനും സൗകര്യം ഒക്കെ വേണം അങ്ങനെ ഒരു സ്ഥലം ഒന്നുമല്ലെങ്കില് ഒരു പത്ത് സെന്റ് സ്ഥലം അല്ലെങ്കില് ഒരു പിന്നെ പത്ത് സെന്റ് അതായത് വീടും സ്ഥലവും കൂടെ

വീട് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റീന് ലാക്സ് ആണ് പൈസയോ മ് ആ വാര്ത്ത വീട് തന്നെ മതി എന്തെങ്കിലും കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്കും കുറച്ച് എന്തെങ്കിലും തരേണ്ടേ നിങ്ങള് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ നോക്കാന് കേട്ടോ മ് ഉള് ഉള്ളിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത്ര ഉള്ളിലേക്ക് വേണ്ട അതായത് നമുക്ക് ഒരു നമുക്ക് ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ വിട്ടിട്ട് പക്ഷേ ടൗണ് ആയിരിക്കരുത് അപ്പം ജസ്റ്റ് ഒരു റോഡ്സൈഡിൽ ഇപ്പം പിന്നെ അങ്ങനെ ഒരിത് അതായത് നമുക്ക് ഉള്ളിലോട്ട് അതായത് വണ്ടിയൊന്നും വണ്ടി പോകാനുള്ള സൗകര്യം വേണം കാരണം നമുക്ക് കാറും ബൈക്കും ഉണ്ട് നമുക്ക് വീട്ടിൽ അപ്പം നമുക്ക് വണ്ടി പോകാനുള്ള ഒരു സൗകര്യം നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരണം ആ മ് ഓക്കെ ഓക്കെ മ് ആ അത് കുഴപ്പമില്ല പതിനഞ്ചു ലക്ഷം ഫിഫ്റ്റീൻ ലാക്സ് അല്ലേ ആവുന്നുള്ളൂ ഓക്കെ ഓക്കെ മ് ഓ അത് നമുക്ക് വിഷയമേ അല്ല അതൊന്നും നമുക്ക് ഒരു കുഴപ്പമേ അല്ല മുപ്പത് ലക്ഷമൊന്നും മ് പിന്നെ എല്ലാം റെഡി ആക്കി തന്നാല് നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾക്ക് ഞങ്ങൾ വണ് ലാക്ക് തരും മ് മ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നു ഫോട്ടോ ഒന്നയച്ചു തരുവോ വാട്ട്സ്ആപ്പില് ഓക്കെ എന്നാൽ ഒക്കെ എന്നാൽ ഞാന് ഇഷ്ടപ്പെടുകയാണെങ്കില് ഞാന് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കാം കേട്ടോ